ഇപ്പോൾ ജീവിതത്തിൽ കലയ്ക്കുള്ള ഇത് എന്താണെന്നൊക്കെ ചോദിച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ കലാപരമായിട്ട് ഇപ്പോൾ ഒരുപാട് അവസരങ്ങൾ ഇപ്പോൾ കലയിൽ ഒക്കെ വരുന്നുണ്ട് അതായത് ഇപ്പോൾ ഡ്രോയിങ് ആർട്ടിസ്റ്റുകൾക്കൊക്കെ എന്താ പറയുക ഒത്തിരി അവസരങ്ങളും കാര്യങ്ങളും ഒക്കെ ഇപ്പോഴും സമൂഹത്തിൽ ലഭിക്കുന്നുണ്ട് അപ്പോൾ അത് കൊണ്ട് സമൂഹത്തിലുള്ള കലാകാരന്മാരെയൊക്കെ ഉയർത്തികൊണ്ട് വരാൻ ഒരുപാട്പേര് ശ്രമിക്കുന്നുണ്ട് കാരണം ആർട്ട് ആയിക്കോട്ടെ ഇപ്പോൾ കലാപരമായിട്ട് വാസനയുള്ളവരൊക്കെ ആണെങ്കിൽ ഈ അനിമേ ഷൻ അങ്ങനെയുള്ള കാര്യങ്ങൾക്കൊക്കെ അനിമേഷൻ അങ്ങനെയുള്ള പുതിയ പുതിയ ടെക്നിക്കുകൾക്കൊക്കെ വേണ്ടിയിട്ട് ഉപയോഗിക്കാവുന്നതാണ് അത് കൊണ്ട് നല്ല രീതിയിൽ ഇതിനെ കലയെ വികസിപ്പിക്കാൻ വേണ്ടിയിട്ട് ഒരുപാട് എന്താ പറയുക ഒത്തിരി രംഗങ്ങൾ ഇപ്പോൾ സമൂഹത്തിൽ ഉണ്ട് ഒരുപാട് എന്താ പറയുക സംരംഭങ്ങൾ അതിന് വേണ്ടിത്തന്നെ ഇപ്പോഴും പ്രവർത്തിക്കുന്നുമുണ്ട് അപ്പോൾ നല്ല രീതിക്ക് കലയെ മെച്ചപ്പെടുത്തുന്നത് സമൂഹത്തിനും നല്ലതാണ് അത്യാവശ്യം നല്ല എന്താ പറയുക അവസരങ്ങൾക്കൊക്കെ നല്ല അവസരങ്ങൾ ഒക്കെ ലഭിക്കും അപ്പോൾ അത് കൊണ്ട് കല മുന്നോട്ട് വരുന്നത് എന്ത് കൊണ്ടും നല്ലൊരു കാര്യമായിട്ടാണ് എനിക്കും തോന്നുന്നത് അപ്പോൾ കലാപരമായ കഴിവുകൾ ഉള്ളവർക്ക് ഭാവിയിൽ എന്തെങ്കിലും ഒക്കെ നേടിയെടുക്കാൻ ഇത് നല്ല രീതിക്ക് ഉപകരിക്കും എന്നാണ് എനിക്കും പറയാൻ ഉള്ളത്